ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ മകൻ്റെ രണ്ടു കുട്ടികൾക്ക് രണ്ട് ചെറിയ ഉടുപ്പ് വാങ്ങി ഒരൂ വെള്ളയും റോസും കളറുള്ള വിലൻ്റെ ഒരു ഉടുപ്പ് അത് ഇട്ടിട്ടു കാണാൻ രസമുണ്ട് എല്ലാവരും പറഞ്ഞു നല്ല രസമുണ്ട് അതിന് അഞ്ഞൂറ് രൂപയാണ് ആയത് ആ ഉടുപ്പ് കണ്ടിട്ട് അതിന് ആയിരം രൂപൻ്റെ മുതലുണ്ട് കണ്ടിട്ട് ഉണ്ട് എല്ലാവരും പറഞ്ഞു നല്ല നല്ല ഭംഗിയുണ്ട് പിന്നെ അത് കളറും പോകില്ല ഒക്കെ പറഞ്ഞിട്ട് കേട്ടു കുട്ടികൾക്കും എല്ലാം നല്ലവണ്ണം ഇഷ്ടപ്പെട്ടു